പുന്തോട്ട പരിപാലനം ഒരു വിനോദ വൃത്തിയായി എടുക്കാനുള്ള ഒരു കാരണം തന്നെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പണിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് അതിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരുപാട് അത് തന്നെ നമ്മൾ വേറെ ഒരു വേറെ ഒന്നും ആലോചിക്കാതെ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ അങ്ങ് നിൽക്കും അപ്പോൾ നമുക്ക് മൈൻഡ് ഒരുപാട് റിലാക്സ് ആകും പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ നമ്മൾ നട്ട് വളർത്തുന്ന ചെടികളുടെ ഒരു പൂവെങ്കിലും കാണുമ്പോൾ നമുക്ക് വളരെ അധികം സന്തോഷം തോന്നാറുണ്ട് രാവിലെയൊക്കെ വന്നു നോക്കുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറച്ചു പൂക്കളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് പിന്നെ എൻ്റെ ആ പൂന്തോട്ടം പിന്നെ കാണാൻ വേണ്ടി എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അപ്പുറത്തൊക്കെ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്ന് ആ വന്ന് അവിടെ നിന്ന് പൂവൊക്കെ പറിച്ച് കൊണ്ടു പോകാറുണ്ട് പിന്നെ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള വിത്തും ഈ ചെടിയുടെ തണ്ടും ഒക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുമ്പം നമുക്ക് വളരെ അധികം സന്തോഷമാണ് അപ്പോൾ ഓരോ ദിവസം ഓരോ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നെ ഓരോ കമ്പുകളും വിത്തുകളും ഒക്കെ കാണുമ്പം അവിടുന്നൊക്കെ കൊണ്ടു വന്ന് നമ്മളുടെ വീട്ടിലും നട്ടു വളർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷനുകളുണ്ട് ചെടികളുടെയൊക്കെ ഒരുപാട് കളക്ഷനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ദിവസവും വന്ന് വീട്ടിൽ നിന്ന് പൂവ് അവർ സ്കുളിൽ പോകുമ്പോഴൊക്കെ